ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേരളത്തിലെ വയനാടെന്ന ജില്ലയില് ഉരുള്പൊട്ടൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അനേകം ആളുകള്ക്ക് അവർ ചെയ്തിരുന്ന തൊഴിലും അവർ താമസിച്ചു കൊണ്ടിരുന്ന അവരുടെ വീടും പുരയിടവും അവരുടെ സ്ഥലവും അവരുടെ അവരുടേതായ ഈ ഭൂമിയിലുണ്ടായിരുന്നതൊക്കെ തന്നെയും നഷ്ടമാവുകയുണ്ടായി ചിലവര്ക്ക് ഉറ്റവരെ പോലും നഷ്ടമാവുക ഉണ്ടായി എന്നാല് വയനാടിലെ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകള്ക്ക് വേണ്ടി ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും പല ആളുകള് സന്മനസ്സുള്ളവര് അവര്ക്ക് വേണ്ടി അവരെക്കൊണ്ട് ആകുന്ന വിധം അവർ അധ്വാനിച്ചതിന്റെ ഒരു പങ്ക് അവര്ക്ക് വേണ്ടി പൈസ ഒക്കെ സര്ക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി എന്നാല് ഈ അടുത്തിടെ കേട്ട വാര്ത്തകളില് നിന്നും ആ പൈസ കുടിയേറി പാര്ത്തവര്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടില്ലെന്നും അവിടെ ഉണ്ടായിരുന്ന വളരെ കുറച്ചു ആളുകള്ക്ക് വേണ്ടി മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള വാര്ത്തകള് കേള്ക്കുന്നു അത് കേട്ടപ്പോള് ഞങ്ങളുടെ കോളേജില് എന്സിസിയുടെ ഭാഗമായി ഞങ്ങള് ഈ ദുരിതം നടന്നപ്പോള് തന്നെ അവര്ക്ക് വേണ്ടി ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ സമ്പാദിച്ചിരുന്നു അത് ആദ്യമേ ഞങ്ങള് വയനാടിലേക്ക് മുഴുവനായി കൊടുക്കാന് തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആ വാര്ത്തകളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടുകളൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള വാര്ത്തകളെക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് ആ തുക മുഴുവനായും റീജിയണല് കാന്സര് സെന്റര് തിരുവനന്തപുരത്തേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി ഞങ്ങളുടെ മേം ഹെലന്സി മേം കാന്സറുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നപ്പോള് അവര് നേരിട്ട് കണ്ടതാണ് അവിടുത്തെ ഫണ്ടിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയെന്നും അതില് മാമിന് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങള് അന്ന് വയനാടിന് വേണ്ടി സംഭരിച്ച ആ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന തുക തിരികെ സര്ക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാതെ റീജിയണല് കാന്സര് സെന്ററിലേക്ക് സംഭാവന ചെയ്തത് ഇപ്പോള് ഇത്തരം വാര്ത്തകള് വയനാടിനേക്ക് അനേകം ആളുകള് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഈ തുകകളൊക്കെ തന്നെ നംംമുടെ സര്ക്കാരും അവരുടെ എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാരോ അവരുടെ സ്വാര്ത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അത് വേണ്ടവര്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ട് പോകുന്നില്ല എന്നും ഒക്കെയുള്ള അറിവുകൾ കേള്ക്കുമ്പോഴേക്കും അത് ഞങ്ങൾ എടുത്താൽ തീരുമാനം വളരെ വളരെ വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം വാര്ത്തകള് കേള്ക്കുമ്പോൾ അത് പിന്നീട് ഇത്തരം ദുരിതമുണ്ടാവുമ്പോള് സന്മനസ്സോടെ കൂടെ ചെയ്യാന് മുന്നിട്ട് വരുന്ന ആളുകള്ക്ക് കൂടി അത് മോശമായി പോവുന്ന രീതി കൂടെയാണ് കേള്ക്കാന് സാധിക്കുന്നത് അപ്പോൾ ഈ വാര്ത്തകളെല്ലാം തന്നെ നന്മ ചെയ്യാന് പോലും ഉദേശിക്കുന്ന ആളുകള്ക്ക് കൂടി ഇവരെ മടുപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ട് അനുഭവപ്പെടുന്നു ഇത്തരം വാര്ത്തകള് തികച്ചും നല്ലതായി തോന്നുന്നില്ല ഇനിയും ഇത്തരം വാര്ത്തകള് കേള്ക്കാതിരിക്കട്ടെ